ജനുവരി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഒന്ന് മെയ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നവംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട്